ചിത്രകലയിൽ ഇപ്പം ഞാൻ പടം വരയ്ക്കുന്ന ഒരാളായോണ്ടന്നെ എൻ്റെ ഒരു നിഗമനം വെച്ചു പറയുകയാണെങ്കിൽ നമ്മളിപ്പോൾ ഒരു ചിത്രകലയിലിപ്പം പ്രവേശിക്കുന്ന സമയത്ത് നല്ല കോൺസൻറ്റ്റേഷൻ വേണം എൻ്റെ നിഗമനം എൻ്റെ രീതിയാണ് ഞാൻ പറയുന്നത് നല്ല കോൺസൻറ്റ്റേഷൻ വേണം നമ്മുടെ മനസ്സും ശരീരമൊക്കെ ഒരിടത്ത് തന്നെ ആയിരിക്കണം എങ്കിൽ മാത്രമേ നമ്മൾ വിചാരിക്കുന്ന പടം നമുക്കാ ചിത്രത്തിലേക്ക് വരയ്ക്കാൻ പറ്റൂ കാരണംന്നു വെച്ചാൽ ഇപ്പം നമ്മളിപ്പം വീട്ടിൽ നടക്കുന്ന എന്തെങ്കിലുമോക്കെ സംഭവം ഇപ്പം വിഷമിച്ചിട്ടാണ് പോണേങ്കിൽ വീട്ടിന്ന് ഒരവസ്ഥ കൊണ്ട് വിഷമിച്ചിട്ടാണ് പോണേങ്കിൽ കൂടുകാരായിട്ട് പിണങ്ങിയിട്ടൊക്കെയാണ് നമ്മളൊരു പ്രവേശിക്കുന്നതെങ്കിൽ ചിത്രകലയിലേക്ക് പ്രവേശിക്കുന്നതെങ്കിൽ നമുക്കൊരിക്കലും നമ്മൾ വിചാരിക്കുന്ന ആ ഒരു പടം നമുക്കതിലോട്ട് പകർത്താൻ പറ്റത്തില്ല കാരണം ഇതിന് വേണ്ടത് കോൺസൻറ്റ്റേഷൻ ആണ് പിന്നെ വേറെ ഒരു കാര്യംന്നു വെച്ചാൽ ഇപ്പോൾ നമ്മളിപ്പോൾ ഉപയോഗിക്കുന്ന സാധനങ്ങൾ തന്നെ നമ്മൾ കൊണ്ടുപോകാൻ ശ്രമിക്കുക അല്ലാതെ മറ്റുള്ളവരുടെ കയ്യീന്നു വാങ്ങിച്ചു ഉപയോഗിക്കാൻ നോക്കരുത് ഇപ്പോൾ കളറായാലും പെൻസിലായാലും റബ്ബറായാലും പേപ്പറായാലും എന്തോ ആയിക്കോട്ടെ ഇപ്പം നമ്മൾ നമുക്ക് വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ നമ്മൾ കൊണ്ടുപോകാൻ ശ്രമിക്കുക മറ്റുള്ളവരുടെ കയ്യീന്നു വാങ്ങിച്ചുപയോഗിക്കാൻ ആണെങ്കിൽ നമുക്ക് അങ്ങനെയും കുറെ സമയം പോകും അതൊക്കെ ഓരോ പ്രശ്നങ്ങൾക്ക് കാരണമാവും പിന്നേന്നു വെച്ചാൽ പിന്നെ വേറെ എന്താ പറയേണ്ടത് പിന്നെ ഇമ്മളിപ്പം എന്താ പറയെണ്ടേ ഒരു എൻ്റെ രീതി വെച്ച് പറയുമ്പം ഞാൻ അതിങ്ങനെ പോകുന്ന സമയത്തിൽ ഇപ്പം എന്തേലും ചിത്ര രചനയ്ക്ക് മൽസരത്തിലൊക്കെ പങ്കെടുക്കുവാണെങ്കിൽ ഞാനാദ്യം തന്നെ ഇപ്പം രാവിലെ തന്നെ ആ ഒരു ഹോളിൽ കയറി നമ്മളിരിക്കുന്ന ടൈമുണ്ടല്ലോ അപ്പോൾ നമ്മൾ അന്നത്തെ ദിവസം ആ ദിവസത്തെപ്പറ്റി അല്ലെങ്കിൽ ഇന്നലത്തെ ദിവസത്തെപ്പറ്റി എന്തേലൊക്കെ ഓർക്കും ഇപ്പോൾ എക്സാമ്പിൾ ഇപ്പം ഉദാഹരണം പറഞ്ഞപ്പം പടം വരയ്ക്കുന്നവർ പറയുവാണ് ടോപ്പിക് നമ്മളെ മനസ്സിലുള്ളൊരു കാര്യം നമ്മളതിലോട്ട് വരയ്ക്കാൻ പറഞ്ഞാൽ ഇപ്പം അന്നത്തെ ദിവസപറ്റി അത് അന്നത്തെയോ അല്ലെങ്കിൽ എന്നത്തെ നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു ദിവസത്തെ പറ്റി നമ്മൾ മനസ്സിൽ ഓർത്തിട്ട് അതിൽ നമുക്ക് ഏറ്റവും ആഴമായിട്ടുള്ള എന്താണോ അതാണ് ഞാൻ പകർത്താറുള്ളത് പിന്നെ അല്ലാതെ അവർ ടോപ്പിക് തന്നിട്ട് ഇത് നിങ്ങൾ വരയ്ക്കാൻ പറഞ്ഞാൽ ഞാൻ അങ്ങനെ വരയ്ക്കും അപ്പോൾ അതാണ് പറയുന്നത് നമുക്ക് കോൺസൻറ്റ്റേഷനും മൈൻഡൊക്കെ ഒരിടത്ത് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കൊരു ചിത്രം വരയ്ക്കാൻ പറ്റുളളു ഇല്ലെങ്കിൽ നമ്മളെ മൈൻഡ്ക്കെ പോയിട്ട് നമ്മൾ വരയ്ക്കുന്നത് വരെ നമ്മൾ ഓർക്കുന്നത് ഒക്കെ വേറെയാകും നമുക്കത് ഡിസ്ടർബൻസ് ആയിട്ടൊക്കെ തോന്നും ഇറിറ്റേഷൻ ആയിട്ട് തോന്നും ബോറടിക്കുന്ന പോലെ തോന്നും അതൊക്കെ എന്നു വെച്ചാൽ നമുക്ക് കോൺസൻറ്റ്റേഷൻ ഇല്ലാത്തതിൻ്റെ പ്രശ്നമാണ് മെയിനായിട്ട് എൻ്റെ കോൺസൻറ്റ്റേഷനാണ് പിന്നെന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ നമ്മൾ കൊണ്ടുപോകുന്ന സാധനങ്ങളൊക്കെ നമ്മൾ തന്നെ ഉപയോഗിക്കാൻ നോക്കുക പിന്നെ വേറെ ആർക്കും കൊടുക്കാതിരിക്കാൻ അങ്ങനെയൊക്കെ ഓരോ പ്രശ്നങ്ങൾ വരും കാരണം കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കുന്ന സമയത്ത് ചിലപ്പോൾ അവരടുത്ത് ചോദിക്കുമ്പോൾ അവരുടെ മൈൻഡ് മാറും പിന്നെ ചോദിക്കുന്ന ടൈമ് ടൈമ് പോകുമ്പോൾ നമുക്ക് നമ്മുടെ മൈൻഡ് മാറും നമുക്ക് അതിനുള്ള ടെൻഷനാകും പിന്നെ വരയ്ക്കുന്ന ഒന്നും കിട്ടത്തില്ല അപ്പം അതാണ് മെയിൻ കാരണം പിന്നെ വേറെ ഒരു മെയിൻ കാരണംന്നുവച്ചാൽ നമ്മളൊരിക്കലും പേടിക്കാതിരിക്കാൻ ഇപ്പം നമ്മളിപ്പോൾ എല്ലാവർക്കും അറിയാലോ ഒരു എക്സാം ഹോളിലായാലും മൽസരത്തിന് കയറിയതായാലും നമ്മളെ ടീച്ചേഴ്സ് ആയിരിക്കത്തില്ല ചിലപ്പം നമ്മുടെ ടീച്ചേഴ്സായിരിക്കും അല്ലേ വേറെ ടീച്ചേഴ്സായിരിക്കും അപ്പോൾ ഒരുപാട് സ്ഥലത്തതന്നെ ഒരു സ്കൂളിലാണെങ്കിൽ നമ്മളിപ്പം വരയ്ക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരു ചെറിയ ഒരു ഒരു മൽസരമായത് കൊണ്ട് നമ്മളെ ടീച്ചറ്മാരൊക്കെ ആയിരിക്കും പക്ഷേ വേറൊരു സ്ഥലത്ത് വലിയ വലിയ സ്ഥലത്തൊക്കെ നമ്മൾ പോകുന്ന സമയത്ത് നമുക്ക് നമ്മക്കറിഞ്ഞൂടാത്ത ആൾക്കാരായിരിക്കും അധികവും അപ്പം നമുക്ക് ടെൻഷൻ കാണും വഴക്കു പറയോ ഇറക്കി വിടോ ഈ ചോദിച്ചതിന് തെറ്റുണ്ടോ എങ്ങനെയായിരിക്കും അപ്പം നമുക്ക് ടെൻഷനക്കെ ഇല്ലാണ്ട് വേണം നമ്മൾ ഒരു മൽസരത്തിൽ പങ്കെടുക്കാൻ ടെൻഷനൊന്നും ഉണ്ടായിരിക്കരുത് ടെൻഷനക്കെ ആയി കഴിഞ്ഞാൽ എല്ലാം കയ്യിന്ന് പോകും നമ്മൾ പേടിക്കാണ്ട് കൂളായിട്ടും കാമായിട്ടും ഇരുന്ന് വരയ്ക്കാണെങ്കിൽ നമുക്ക് നല്ല കോൺസൻറ്റ്റേഷനും കിട്ടും നമ്മൾ എന്താണോ മനസ്സിൽ ഉദ്ദേശിച്ചത് നമുക്ക് വരച്ച് നമ്മൾ വിചാരിക്കുന്ന മാർക്ക് നമുക്ക് കിട്ടുകയും ചെയ്യും അപ്പോൾ അങ്ങനെ കോൺസൻറ്റ്റേഷനൊക്കെ വേണം പിന്നെ എങ്ങനെ ഒഴിവാക്കാന്നല്ലേ പരിശീലനം ആവശ്യമാണ് അപ്പം പരിശീലനം എന്ന് പറഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ ഇപ്പം എൻ്റെ ഇതുവെച്ച് നമുക്ക് ഓൾറെഡി നമുക്കാ ഒരു കഴിവ് നമുക്ക് നേരത്തെ കിട്ടിയിട്ടുണ്ടെങ്കിൽ ഒരു കുഴപ്പവുമില്ല നമുക്ക് പരിശീലനത്തിന് വേണ്ട നമുക്ക് വെച്ചാൽ ഒരാളുടെ സഹ ഒരാളുടെ സഹായം കൂടെ ഉണ്ടെങ്കിൽ വേണമെങ്കിൽ നമുക്ക് കുറച്ചു കൂടെ മെച്ചപ്പെടുത്തി എടുക്കാം ഇല്ലാ പടം വരയ്ക്കാത്ത ഒരു കുട്ടിയാണ് പടം വരയ്ക്കൽ പടിക്കുന്നതൊക്കെ ആഗ്രഹം ഉണ്ടെങ്കിൽ അവർ കുഞ്ഞിലേ തൊട്ട് തന്നെ കൊച്ചു കൊച്ചു ക്ലാസിലായാലും പടം വരപ്പ് വലിയ വലിയ ആൾക്കാരടുത്ത് പോയി പടം വര അതിനുള്ള പരിശീലനമൊക്കെ എടുത്തു കഴിഞ്ഞാൽ അവർക്ക് അവർ വിചാരിക്കുന്ന രീതിയിൽ ചെയ്യാൻ പറ്റും നേരത്തെ തന്നെ കഴിവുള്ള ആളാണെങ്കിൽ കുറച്ചും കൂടെ മെച്ചപ്പെട്ട രീതിയിൽ ചെയ്യാൻ പറ്റും കഴിവില്ലാതെ നമ്മൾ സ്വന്തമായിട്ട് കഴിവ് വളർത്തണം എന്നാണ് ആഗ്രഹം ഉണ്ടെങ്കിൽ നമ്മളതിനുള്ള രീതിയിൽ പോയി കഴിഞ്ഞാൽ മറ്റുള്ളവരുടെ കയ്യീന്ന് നമുക്കത് പഠിക്കാൻ പറ്റും പിന്നെ അപ്പം നമുക്ക് ഒന്നിലും നമുക്ക് താല്പര്യം ഇല്ലാതെ നമ്മൾ ചെയ്യരുത് കാരണം എന്തുണ്ടെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ മാത്രമേ ചെയ്തിട്ടു കാര്യമുള്ളു പരിശീലിക്കുന്നതിന് കാര്യമുള്ളു പരിശീലനം എന്നു പറഞ്ഞാൽ തന്നെ എല്ലാവർക്കും അറിയാ കാരണം നമ്മൾ നമുക്ക് ഈ ചെയ്യാനിഷ്ടമില്ലാത്ത ഒരു കാര്യം നമ്മൾ എന്നു വെച്ചാൽ ചെയ്യാനിഷ്ടമില്ലാത്തതും ഇഷ്ടമുള്ള കാര്യവും നമ്മൾ ചെയ്യുന്നതാണ് അപ്പോൾ ചിലർക്ക് അത് ബോറായിട്ട് തോന്നും ബോറായിട്ട് തോന്നുന്നത് എന്തുകൊണ്ടാണ് അതിനോടുള്ള ഇൻറ്ററെസ്റ്റ് കുറയുന്നതു കൊണ്ടാണ് താല്പര്യം കുറയുന്നുണ്ട് അപ്പം എന്തു ചെയ്യണം പ്രത്യേകിച്ച് ഈ പടം വരപ്പെന്ന് പറയുമ്പോൾ നമുക്കൊരു പടം തന്നെ പരിശീലിക്കാം നമുക്ക് ഈ സിനിമയിലൊക്കെ കാണാതെ തന്നെ പടം വരയ്ക്കുന്ന സമയത്ത് അവർ ചെറിയ പടം നമ്മൾ തന്നിട്ട് ഒരുപാട് പ്രാവശ്യം നമ്മളെ വരപ്പിക്കും കാരണം അതൊന്ന് പേർഫക്റ്റാക്കാൻ വേണ്ടി അപ്പോൾ താല്പര്യം ഇല്ല ഇപ്പോൾ നമ്മൾ വരുന്ന ചെയ്യുന്ന താല്പര്യം പിന്നെ നമുക്ക് ഉണ്ടാകില്ല ഉണ്ടാകത്തില്ല ചിലർക്കങ്ങനെയാണ് അപ്പം നമ്മൾ മുഴുവൻ താല്പര്യം നമുക്ക് ഇതാവണം പടം വരച്ച് നല്ല പരിശീലനം നേടണം എന്ന നല്ല ഉറപ്പുള്ള മനസ്സാണെങ്കിൽ ഒരിക്കലും നമുക്ക് ബോറടിക്കാതെ തന്നെ നമ്മൾ അത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും അപ്പം എന്തു ചെയ്യണമെങ്കിലും പ്രത്യേകിച്ച് പടം വരപ്പ് പടം വരയ്ക്കുന്ന മനസ്സിലൊക്കെ കയറുകയാണെങ്കിലും പടം വരയ്ക്കാൻ താല്പര്യം ഉണ്ടെങ്കിലൊക്കെ അതിനൊക്കെ നമ്മൾ മുഴുവൻ താല്പര്യം കൊടുത്തു വേണം നമ്മൾ ചെയ്യാൻ അപ്പം അതൊക്കെയാണ് എനിക്ക് പറയാനുള്ളത് പിന്നെ ഈ വീഴ്ചകളൊക്കെ മാറ്റി വെച്ചു കഴിഞ്ഞാൽ നമുക്ക് നല്ല പോലെ നമ്മൾ വിചാരിക്കുന്ന രീതിയിലുള്ള ഒരു ഒരു മാറ്റം നമുക്ക് കൊണ്ടുവരാൻ സാധിക്കുകയും ചെയ്യും ഒരു നല്ല കലാകാരൻ നമ്മൾ നല്ല പരിശീലനം നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ ആ താല്പര്യം ഉള്ള ആൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ അത്ര നല്ലൊരു കലാകാരനാകാനും പറ്റും അപ്പം അതിന് വേണ്ടിട്ടുള്ള പരിശീലനം നല്കി പരിശീലനം കിട്ടിക്കൊണ്ടിരിക്കുകയും വേണം താല്പര്യം ഇല്ലായ്മ കാണിക്കാതെ നമ്മളെന്താണോ ആഗ്രഹിച്ചത് നല്ല ഒരു കലാകാരനാണെങ്കിൽ കലാകാരിയോ കലാകാരനോ ആവാൻ താല്പര്യം ഉണ്ടെങ്കിൽ നമ്മൾ അതിൻ്റെ മുന്നോട്ട് പോകാൻ നമ്മളവസാനം നല്ല മനസ്സാണെങ്കിൽ അല്ലെങ്കിൽ അതിനുള്ള താല്പര്യം ഒരുപാട് ഉണ്ടെങ്കിൽ നമ്മളവസാനം നല്ലൊരു കലാകാരനോ കലാകാരിയൊക്കെ ആയി തീരാൻ സാധ്യത കൂടുതലാണ് ഇപ്പം ഇതിനെപ്പറ്റി എനിക്ക് ഇത്രയേ പറയാനുള്ളു